ഞാനിപ്പോൾ ഗ്രഹണം പോലുള്ള പരിപാടികളൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇപ്പോൾ സൂര്യഗ്രഹണം സോറി ചന്ദ്രഗ്രഹണംന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് സൂര്യനെ ചന്ദ്രൻ വന്ന് മറയുന്ന ആ ഒരു കാഴ്ച തന്നെയാണ് അത് അപ്പോൾ നമ്മൾ അത് നോക്കുമ്പോൾ ഇങ്ങനെ നേരിട്ട് നഗ്നനേത്രം കൊണ്ട് നോക്കിയാൽ നമുക്ക് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മൾ എന്താ പറയാ എക്സ്റേ പോലുള്ള സാധനങ്ങൾ ഇത് ഒക്കെ ഉപയോഗിച്ച് എക്സ്റേയുടെ ഫിലിം ഉപയോഗിച്ച് സൂര്യന് നേരെ പിടിച്ചു നോക്കുമ്പോഴാണ് നമ്മള് സാധാരണ ഗ്രഹണങ്ങളൊക്കെ കാണുന്നത് പിന്നെ ഉൽക്ക പോലുള്ള സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മൾ തന്നെ രാത്രിയൊക്കെ ആകാശത്ത് നോക്കി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്താണ് നക്ഷത്രങ്ങള് പോലെ പോകുന്ന ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് അത് ഉൽക്കയാണോ അതോ ഇനി വല്ല വേറെ എന്തെങ്കിലും പ്രതിഭാസമാണോ എന്നൊന്നും നമുക്ക് കറക്റ്റ് ഇതുവരെ അറിയാൻ പറ്റിയിട്ടില്ല എന്നാലും ഉൽക്ക പോലുള്ള സാധനങ്ങളൊന്നും നമ്മൾ അങ്ങനെ അധികം കണ്ടട്ടില്ല കൂടുതലും നമ്മള് ഗ്രഹണം പോലുള്ള കാര്യങ്ങളൊക്കെയാണ് കണ്ടിട്ടുള്ളത് പിന്നെ ഗ്രഹണത്തിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കി തന്നെ മനസ്സിലാക്കാം ഒരു നിശ്ചിത സമയത്തേക്ക് മാത്രമാണ് ഈ പ്രതിഭാസം ആകാശത്തു നടക്കുന്നതെന്നാണ് എൻ്റെ ഒരു അറിവ്